ഞങ്ങളുടെ നമ്മുടെ ഭവനത്തിൽ രണ്ട് മൂന്ന് നാല് വീടുകളൊക്കെ ഹിന്ദുക്കളാണ് താമസിക്കുന്നത് അവർക്ക് അന്ധവിശ്വാസങ്ങൾ തന്നേ ഉള്ളൂ ചൊവ്വാഴ്ച്ച ദിവസം അവരുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് അന്യമതസ്ഥർ ആരെങ്കിലും കയറുന്നത് ഐശ്വര്യം ആണെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഒന്നാം തീയതി ദിവസങ്ങളിൽ അവരുടെ ഭവനങ്ങളിൽ നമ്മുടെ വിധവകളായിട്ടുള്ള നമ്മുടെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും കയറുന്നതിന് അവർ നല്ല രീതി തന്നെയാണ് അവർ അത് വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികളായ ഒരു വിധവ രാവിലെ വന്ന് അവരുടെ ഭവനത്തിൽ കയറുന്നത് നല്ലതാണെന്ന് അവർ പറയാറു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ അവർ പറയുന്നത് വെള്ളിയാഴ്ച്ച ദിവസങ്ങളിൽ അവരുടെ ഭവനത്തിലേക്ക് ആരും കയറി വരുന്നത് അവർക്ക് താല്പര്യമില്ല കണി കാണുന്നത് പോലും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങളൊക്കെ രാവിലെ ആറുമണിക്ക് പള്ളിയിലേക്ക് പോകുന്ന വ്യക്തികളാണ് അഞ്ചെ മുക്കാൽ കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊരു വ്യക്തിയാണ് പക്ഷേ അവർ നട തുറക്കുന്ന സമയത്ത് അവരുടെ വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ നമ്മൾ അതിലെ കൂടെ പോവുവാണെങ്കിൽ ചില വ്യക്തികളെ കാണുമ്പോഴത്തേക്കും അവർ പറയുന്നത് ആ വ്യക്തിയെ കണ്ടിട്ട് ഞങ്ങളുടെ ദിവസം ഇന്നത്തെ പോയി ശകുനമാണെന്നാണ് അവർ അത് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളോട് അവർ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ രണ്ടുമൂന്ന് വീടിന് അപ്പുറത്തുള്ള നമ്മുടെ മതത്തിലുള്ളൊരു വ്യക്തി നമ്മുടെ ആൾക്കാർ ആരെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് പോവുവാണെങ്കിൽ പ്രായം ചെന്ന ഒരു അമ്മച്ചി പറയുന്നതാണ് അവർ എനിക്ക് ഏതാണ്ട് കൈവിഷം ഇവിടെ മുറ്റത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോവുന്നതാണ് എനിക്ക് അവർ വന്ന് പോയതിൽ പിന്നെ തല പൊക്കാൻ പറ്റിയിട്ടില്ല അങ്ങ് പിന്നെ ഒരു വക കഴിക്കാൻ പറ്റുന്നില്ല എന്ത് കഴിച്ചാലും ഛർദ്ദിലാണ് അവർ ഞാൻ ചായ കുടിക്കുന്നത് കണ്ടു ഇറച്ചി കഴിക്കുന്നത് കണ്ടു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ ഒരു അന്ധവിശ്വാസമായിട്ട് അവർ അത് ക പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അവർക്ക് അവർ ഏതാണ്ട് മുട്ടയ്ക്കകത്ത് കൂടോത്രം ചെയ്തു വെച്ചിരിക്കുവാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മുടെ മതസ്ഥരിലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ട് അപ്പം അവിടെയൊക്കെ ഞങ്ങൾ പ്രതികരിക്കാറുണ്ട് എങ്കിലും ചില സമയത്ത് പ്രായം ചെന്ന അമ്മച്ചിയോടൊന്നും നമുക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല അവരുടെ മൈൻഡ് വേറെയാണ് ആ രീതിയിലൊക്കെ പോവുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ പ്രദേശത്ത് മിക്കവർക്കും ഹിന്ദുക്കളും ഒക്കെ അന്ധവിശ്വാസത്തിൻ്റെ പ്രകോപനം പിന്നെ അവർക്ക് വെളുപ്പാൻകാലം ഞങ്ങളുടെ തൊട്ട് കിഴക്കേ വീട്ടിൽ ഒരു വീട്ടുകാർ പന്ത്രണ്ട് മണിക്ക് ഹോം ചെയ്യ് ഹോമം ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ ആറായത് കാരണം കടത്ത് ഇറങ്ങി വേണം അവർക്ക് ഇക്കരയ്ക്ക് അവരുടെ പൂജാരി ഒക്കെ കൊണ്ടുവരാനായിട്ട് അപ്പം എൻ്റെ ഭർത്താവിന് കടത്തിറക്കാണ് ജോലി അപ്പോൾ നേരത്തെ പറയും ഒരു പതിനൊന്നേ മുക്കാൽ ആകുമ്പോഴത്തേക്കും രണ്ടു പേർ വരും അവരെ ഇക്കരെ ഒന്ന് ഇറക്കണം എന്ന് പറയും അപ്പോഴത്തേന് ഞാൻ ഒരു ദിവസം ചോദിച്ചു ചേച്ചി എന്താണ് ഈ രാത്രിയിൽ അവർ വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഹോമം ഉണ്ട് അത് ഗണപതി ഹോമം എന്നാണ് അവർ അത് പറയുന്നത് ആ അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തിനാണ് അത് മരിച്ച് പോയിട്ടുള്ളവർക്കൊക്കെ അപ്പം അവരുടെയൊക്കെ ആത്മാവ് സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഹോമം ആണെന്നും പറഞ്ഞ് രാത്രിയിലൊക്കെ അവിടെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ കൊണ്ടുവന്ന് ഞാനൊരു പ്രാവശ്യം മുറ്റം തൂത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു നാല് വർഷ് നാലഞ്ച് വർഷത്തിന് മുമ്പ് മുറ്റം തൂത്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ പുല്ലൊക്കെ കിളച്ചുകൊണ്ടിരുന്ന സമയത്ത് കിളച്ചു വന്നപ്പോൾ കുഴിക്കകത്തുനിന്ന് നമുക്ക് ഇലയും പൂവും തകിടും ഒക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവർ രാത്രി പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തിനോ കൊണ്ടുവന്ന് ഇടുന്നതാണ് അപ്പോൾ ഞാൻ വന്ന് നമ്മുടെ വികാരി അച്ചനോട് പറഞ്ഞു അച്ചാ ഇന്നതുപോലെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ചൻ പറഞ്ഞു അത് മോനേ നമുക്ക് കുഴപ്പം ഒന്നുമില്ല മോനത് കൈ കൊണ്ടൊന്നും തൊടേണ്ട ഞാൻ വന്നത് നോക്കി എടുത്ത് കളഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അച്ചൻ വന്ന് അതെടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് വന്നിട്ടുണ്ട് അതക്കിലൊക്കെ നമ്മൾ അവർക്കൊക്കെ നമ്മൾ അന്ധവിശ്വാസങ്ങളാണ് അവരിൽ നിന്നൊക്കെ നമുക്ക് ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അവർ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ത്യാഗം വയ്ക്കുന്ന കാര്യം മരിച്ചവർ അവരുടെ വീട്ടിൽ ഇപ്പം തന്നെ ഉണ്ടെന്നും പറഞ്ഞ് പൂജ ചെയ്യുക അവരോട് സംസാരിക്കുന്നതായിട്ടൊക്കെയാണ് നമ്മളോട് അവർ പറയുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ അന്ധവിശ്വാസങ്ങളിലൂടെ കടന്നുപോകുന്ന തലമുറ ഇപ്പോഴും നമ്മുടെ പ്രദേശത്തുണ്ട് അത് അവർ ശക്തമായിട്ട് അതിൽ വിശ്വസിക്കുന്നു നമ്മൾ എത്ര പറഞ്ഞുകൊടുത്താലും അവർക്കത് മാറുവാൻ ആയിട്ടുള്ള ഇപ്പോഴുള്ള പുതുതലമുറ ആണെങ്കിൽ അതിനെ ഉൾക്കൊള്ളും പഴയ തലമുറയൊന്നും അതിനെ ഇപ്പോഴും ഉൾക്കൊള്ളുന്നില്ല ഇപ്പോഴും അന്ധവിശ്വാസത്തിൻറെ അടിമത്ത്വത്തിൽ തന്നെയാണ് അവരെല്ലാം കഴിയുന്നത്